എനിക്ക് വളരെ ഏറെ താല്പര്യമുള്ള വാർത്തകളാണ് വിനോദ വാർത്തകൾ അത് ഹോളിവുഡ് ആയാലും മലയാളത്തിലുള്ള വാർത്തകളാണെങ്കിലും വളരെ ഏറെ ശ്രദ്ധയോടെ വായിക്കുന്നതാണ് അത് നമുക്ക് ബോറടിച്ചിരിക്കുന്ന സമയത്തിൽ ഈ വിനോദ വാർത്തകൾ നമുക്ക് രസകരമായിട്ട് തോന്നാറുണ്ട് പ്രധാനമായും ബോളിവുഡ് വാർത്തകളിൽ ശ്രദ്ധിക്കുന്നത് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ബോളിവുഡിലെ സിനിമാ താരങ്ങളായ അമീർഖാൻ ഷാരൂഖാൻ സൽമാൻഖാൻ എന്നിവയുടെ സിനിമകൾ കാണുകയും അവരെ പറ്റിയുള്ള വാർത്തകൾ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ട് കൂടാതെ നടിമാരായ ദീപിക പദുക്കോൺ കരീന കപൂർ കരീഷ്മ കപൂർ തുടങ്ങിയവരുടെ വാർത്തകളുമൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കൂടാതെ താല്പര്യമുള്ള വാർത്തകളാണ് കായിക വാർത്തകൾ കായിക വാർത്തകളിലെ പ്രധാനമായും ക്രിക്കറ്റാണ് ശ്രദ്ധിക്കാറുള്ളത് ക്രിക്കറ്റിനോടാണ് താല്പര്യവും കൂടുതൽ ഫുട്ബോള് വാർത്തകൾ വായിക്കുമെങ്കിലും ക്രിക്കറ്റ് താരങ്ങളെ സച്ചിൻ ടെണ്ടുൽക്കർ വളരെയേറെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്തകളും വായിക്കാറും അദ്ദേഹത്തെ പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കാറുമുണ്ട് കൂടാതെ സമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ഇഷ്ടമാണ് അതിൽ കൂടുതലായി ഇഷ്ടം വിനോദ വാർത്തകൾക്ക് തന്നെയാണ് ഇപ്പോഴത്തെ സമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം സമൂഹത്തിൻ്റെ അധപദനം കാണിക്കുന്ന വാർത്തകൾ പല ചാനലുകളിലും കാണിക്കാറുണ്ട് എന്നാൽ വിനോദ വാർത്തകൾ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കാറില്ല അത് കേട്ടിരിക്കാനും കൂടുതലായി ശ്രദ്ധിക്കാനും ശ്രമിക്കാറുണ്ട് വിനോദത്തിനായിട്ടുള്ള പരിപാടികൾ സഫാരി പോലെയുള്ള ചാനലുകളും കാണാറുണ്ട് നമുക്ക് അത് കൂടുതലായിട്ടും പല രാജ്യങ്ങളെ പറ്റി അറിയാനും അവയെ പറ്റി മനസ്സിലാക്കുന്നതിനും സാധിക്കാറുണ്ട് കുടാതെ യൂട്യൂബ് ചാനലുകളിലും കുട്ടികൾ പ്രധാനമായി വിനോദ വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് അതും ശാസ്ത്ര വിഷയങ്ങളിൽ പെട്ട വിനോദ വാർത്തകൾ ദാ ഈ ഇനത്തിൽപ്പെട്ട വാർത്തകൾ ഇതെല്ലാം നമുക്ക് കൂടുതൽ പ്രയോജനകരമാണ് എന്നു പറയാൻ സാധിക്കും സാധാരണ നടക്കുന്ന സംഭവങ്ങളിൽ നമ്മുടെ മനസ്സിനെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിൽ വിനോദ വാർത്തകൾ മനസ്സിന് രസകരമായി മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് വിനോദ വാർത്തകൾ ശ്രദ്ധിക്കുന്നത് കായിക വാർത്തകളിലെ താരങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് അവരെ പറ്റി കൂടുതലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോല തന്നെ സിനിമാ മേഖലയിൽ പെട്ട ആൾക്കാരെ പറ്റിയും അറിയാൻ സാധിക്കുന്നുണ്ട് കൂടാതെ വായിക്കുന്നത് സാഹിത്യക്കാരന്മാരെ പറ്റിയുള്ള വാർത്തകളാണ് പിന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ എണ്ണം വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ കൂടുതലായും വിനോദ വാർത്തകൾക്ക് പ്രാധാന്യം കൊടുത്തു കൊണ്ട് അവർ വാർത്തകൾ ഇടാറുണ്ട് ഇതും വളരെയേറെ പ്രയോജനകരമാണ് എന്നു കാണാൻ സാധിക്കും കൂടാതെ അത്ര വാർത്തകളിൽ വരുന്ന വിനോദ വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് ചെറിയ കോളങ്ങളിൽ ആണെങ്കിൽ പോലും അത് രസകരമായി തോന്നാറുണ്ട് കുട്ടികൾക്കാണെങ്കിലും പത്രങ്ങളിലേയും ടിവിയിലേയും വിനോദ വാർത്തകൾ കേൾക്കാനാണ് കൂടുതൽ താൽപര്യം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിനോദത്തിനും ഈ വാർത്തകൾ പ്രയോജനപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കും മറ്റു വാർത്തകൾ രാഷ്ട്രീയ വാർത്തകളൊക്കെ നമുക്ക് അലോസരപ്പെടുത്തുന്നു എങ്കിൽ വിനോദ വാർത്തകൾ നമുക്ക് വിനോദം ജനിപ്പിക്കുന്നു എന്നു പറയാൻ സാധിക്കും അതുകൊണ്ടാണ് വിനോദ വാർത്തകളോട് എനിക്ക് കൂടുതൽ താൽപര്യം എൻ്റെ കുട്ടികളാണെങ്കിലും വിനോദ വാർത്തകളാണ് കൂടുതലായി കാണാറുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കണം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് സാധിക്കുന്നു എന്ന് കാണാൻ സാധിക്കും ബോളിവുഡ് വാർത്തകളിൽ പ്രധാനമായും ക്രിക്കറ്റ് മേഖലയിൽ പെട്ടവരുടേയും സിനിമാ മേഖലയിൽ പെട്ടവരുടേയും വാർത്തകളാണ് ശ്രദ്ധിക്കാറുള്ളത് അതുപോലെ തന്നെ കുട്ടികളാണെങ്കിലും ഫുട്ബോൾ താരങ്ങളെ പറ്റിയുള്ള വിനോദ വാർത്തകൾകൊക്കെയാണ് കൂടുതലായും പ്രാധാന്യം കൽപ്പിക്കാറുള്ളത് സാധാരണ അറിവുകളേക്കാൾ കുട്ടികൾക്ക് രസകരമായി തോന്നുന്നത് വിനോദ വാർത്തകളാണ് എന്നു കാണാൻ സാധിക്കും അതുകൊണ്ട് സമൂഹിക മാധ്യമങ്ങളെ വിനോദ വാർത്തകൾ നമുക്ക് ഉപകാരപ്രദമാണ് എന്നു പറയാൻ സാധിക്കും